ഇപ്പം നമ്മുടെ ഭാഷ മലയാള ഭാഷയാണ് പക്ഷേ ഇപ്പം ആരും തന്നെ മലയാളികൾ മലയാള ഭാഷ സംസാരിക്കാറില്ല ഇപ്പത്തെ ലോകത്ത് മുഴുവൻ ഇംഗ്ലീഷാണ് പിള്ളേർ കൊച്ചു പിള്ളേർ വരെ എൽ കെ ജി യൂ കെ ജി എന്നു പറഞ്ഞു ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ കൊണ്ടു പോയി ചേർത്തു അവർ ഇംഗ്ലീഷ് മാത്രം സംസാരിക്കുകയുള്ളു വീട്ടിൽ വന്നാൽ അങ്ങനെ പണ്ടെന്ന് പറഞ്ഞാൽ അമ്മ അച്ഛൻ തറപറ എന്നൊക്കെ അങ്ങനെ തുടങ്ങി മലയാളത്തെ കുറിച്ചുള്ള ഐഡിയയിൽ അവർ മുൻപോട്ട് പോയി കൊണ്ടിരിക്കുന്നു ഇന്ന് ഇംഗ്ലീഷ് ആയതുണ്ട് ഈ നമ്മൾക്കൊന്നും അവരോട് ചോദിച്ചിട്ട് വേണം നമ്മൾ മലയാളികൾ ഈ ചെറിയ പിള്ളേരോട് ചോദിച്ചിട്ടാണ് നമ്മൾ ഇംഗ്ലീഷ് സംസാരിക്കാനും എഴുതാനും വായിക്കാനും ഒക്കെ പഠിക്കുന്നത് അപ്പം ഭാഷ എന്നു പറഞ്ഞാൽ കുറച്ചെങ്കിലും മലയാളം അറിഞ്ഞിരിക്കണം ഇംഗ്ലീഷ് അറിഞ്ഞിരിക്കണം ഹിന്ദി അറിഞ്ഞിരിക്കണം ഓരോ രാജ്യത്തിൽ ചെന്നാൽ ഓരോരോ ഭാഷകളാണ് അപ്പം നമ്മൾ ഏറ്റവും നല്ല ഭാഷ ഒരു ഇംഗ്ലീഷാണ് അപ്പം അതും നമ്മള് കൈകര്യം ചെയ്യാൻ പഠിക്കണം പിന്നെ മലയാളികൾ മലയാളി എവിടെ ചെന്നാലും ഏതു കരയിൽ ചെന്നാലും നാട്ടിൽ ചെന്നാലും മലയാളിൾ ഉണ്ടാവും നമുക്ക് ഒന്നും പേടിക്കാനില്ല പിന്നെ നമ്മുടെ മാതൃഭാഷയാണ് മലയാളം മലയാളം കൈകാര്യം ചെയ്യേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തപ്പെട്ട കാര്യങ്ങളാണ് മലയാള ഭാഷ എഴുതണമെങ്കിൽ ഭയങ്കര പാടാണ് അതെന്തു വച്ചാൽ നമ്മൾ അതിൻ്റെ അക്ഷരങ്ങൾ കുഞ്ഞുനാൾ മുതലേ നമ്മൾ മലയാളം എഴുതാൻ പഠിക്കണം ആ തുടങ്ങി അം വരെ സ്വരങ്ങൾ പിന്നെ ക തുടങ്ങി കം വരെ അങ്ങനെ ഇരുപത്തി എട്ട് അക്ഷരങ്ങൾ ഉണ്ട് അതെല്ലാം നമ്മൾ വ്യജ്ഞനങ്ങൾ അതൊക്കെ നമ്മൾ എഴുതി പഠിക്കണം അങ്ങനെ എഴുതി പഠിച്ചു പള്ളി പിന്നെ ചിഹ്നങ്ങൾ ഉപയോഗിക്കണം ഇതൊക്കെ ഉപയോഗിച്ചെങ്കിൽ മാത്രമേ നമ്മൾക്ക് എഴുതുവാനും വായിക്കാനും പറയാനും എല്ലാ സാധിക്കും അല്ലാതെ നമ്മൾ എങ്ങനെയാണ് മലയാളം പഠിക്കുന്നത് നമുക്ക് എല്ലാം ഇംഗ്ലീഷ് മാത്രമല്ലേ അറിയുള്ളൂ ഇംഗ്ലീഷ് ഒന്നു പറഞ്ഞു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് തന്നെ പഠിക്കുന്നതാണ് സംസാരിക്കാനെങ്കിലും പഠിക്കേണ്ടേ ഇന്നത്തെ കാലത്ത് മലയാളികൾ എവിടെ ചെന്നാലും മലയാളഭാഷയെ പറയുകയുള്ളൂ മലയാളം പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് നേടാൻ പറ്റില്ല എങ്കിലും നമ്മുടെ ഒരു ഒരു ഒരു ബോർഡ് വായിക്കണമെങ്കിൽ അത് ഇംഗ്ലീഷിലും കാണണം മലയാളത്തിലും കാണണം പിന്നെ മലയാളത്തിൻ്റെ ബസ് ബോർഡ് വായിക്കണമെങ്കിൽ പിന്നെ ദൂരെ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് വായിക്കേണ്ടത് അതുപോലെ പിന്നെ ഒരു അപേക്ഷ എഴുതണമെങ്കിൽ നമുക്ക് മലയാളം അറിഞ്ഞിരിക്കേണ്ടെ പിന്നെ ഒരു ഫോം പൂരിപ്പിച്ചു കൊടുക്കണമെങ്കിൽ നമ്മൾ എന്തു ചെയ്യും കുട്ടികൾക്ക് മലയാളം ഒരു എഴുതാനും വായിക്കാനും പഠിപ്പിക്കാനും എല്ലാം നല്ല കഴിവുള്ള മക്കളായിട്ട് പോകണമെന്നാണ് അറിയില്ലാത്തത് എഴുതി കൊടുക്കാൻ ഇതൊക്കെയാണ് ഞാൻ പറയുക എനിക്ക് പറയാനുള്ളത് കൂടുതലായിട്ടും